കോഴി വ്യാപാരത്തിന് ആളുകൾ വിവരിക്കുന്ന മെയിൻ വെല്ലുവിളി വേസ്റ്റ് മാനേജ്മെൻറ്റാണ് കോഴി കട നടത്തുമ്പോൾ വേസ്റ്റ് ഡിസ്പോസലിനായി നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അതു നമ്മുടെ വരുമാനത്തെ കുറയ്ക്കുന്നു ശുചിയുള്ള ഫാമല്ലെങ്കിൽ കട ആണെങ്കിൽ മാത്രമേയുള്ളു നമ്മുടെ ബിസിനസ്സ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതിനാൽ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടതു വളരെ അത്യാവശ്യമാണ് അതുപോലെ കോഴി ഫാമിൽ ഓരോ കോഴിയുടെയും വളർച്ചയുടെ അനുവാദത്തിൽ കുത്തിവെപ്പ് നടത്തേണ്ടതുമുണ്ട് നമ്മൾ ദൂര സ്ഥലത്തേക്കോ കുറച്ചു ദിവസത്തേക്കോ മാറി നിൽക്കേണ്ടി വരാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആദ്യം തന്നെ തന്നെ ഫാം ഫാമിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊടുക്കുകയും അതുപോലെ തന്നെ അവരെ കൊണ്ട് ഇൻഡിപെൻഡൻറ്റായി പരിശീലിപ്പിച്ച് വെയ്ക്കേണ്ടതത്യാവശ്യമാണ് അതിനാൽ നമ്മൾ കുറച്ചു ദിവസത്തേക്കു മാറി നിന്നാലും ഫാമിലി മെമ്പേഴ്സിന് ആ ഫാം നടത്തി കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും